ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ഒന്നുകിൽ വീട്ടിലുള്ള ആൾക്കാർ ഒന്നിൽ മുതിർന്നവർ തമ്മിൽ പരസ്പരം പറഞ്ഞു സംസാരിച്ചു അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നോക്കും അല്ലെങ്കിൽ അതുകൊണ്ടും പരിഹരിച്ചില്ലെങ്കിൽ സഭാതലവന്മാരെയോ അല്ലെങ്കിൽ എന്നാ എന്നാ പറയുന്നത് ഒന്നീ സഭാതലവന്മാരെ വിളിച്ചു കൂട്ടുക അല്ലെങ്കിൽ പള്ളിയിലച്ചൻമാരെയോ ആരെയെങ്കിലും ആരോടെങ്കിലുമൊക്ക പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കും ഇത് അതുകൊണ്ടൊണെന്ന് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റേഷൻ വഴിയോ പോലീസ് സ്റ്റേഷൻ വഴിയോ അല്ലേ ഉപഭോക്തൃ കോടതി വഴിയോ അങ്ങനെയൊക്കെ പറഞ്ഞു പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കും അതൊക്കെയാണ് ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്നത്